ഇപ്പോൾ എന്റെ അഭിമാനമായുള്ള ഒരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതായത് പ്ലസ്ടു ഒക്കെ കഴിഞ്ഞ് ലൈസൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങണം എന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ വീട്ടീന്ന് പൈസയൊന്നും തരാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ഒരു എടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലായിരുന്നു അപ്പോൾ താഴെയുള്ള എന്റെ ഒരു ചേച്ചീൻറ്റെ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയത് അങ്ങനെ ആ പൈസ സ്വരുക്കൂട്ടി വെച്ച് ഞാനൊരു ബൈക്ക് വാങ്ങി അത് ഞാൻ എന്റെ വീടിനടുത്തുള്ള ഒരു ചേട്ടായിനേം കൂട്ടിയിട്ട് പോയിട്ടാണ് ബൈക്ക് വാങ്ങിയത് അത് കോഴിക്കോട് പോയിട്ടാണ് ബൈക്ക് വാങ്ങിയത് അപ്പം അതെനിക്കൊരു അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമായിട്ടാണ് തോന്നിയത് ഇതാണ് മെയിൻ ആയിട്ട് ഞാൻ നോക്കിയത് പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വണ്ടി വാങ്ങിയെങ്കിലും അതിൻറ്റെ അത്ര എനിക്ക് വേറൊരു നേട്ടം ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല